യോഗാ ഒരു ചികിത്സാസമ്പ്രദായമെന്നു പറയാനൊക്കത്തില്ല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് യോഗാ നല്ലതാണ് പിന്നെ ചില രോഗങ്ങള്ക്കും നമ്മള് ഡെയിലി യോഗാ ചെയ്യുകയാണെങ്കില് ഒരു ശമനം വരും അതൊരു ചികിത്സാസമ്പ്രദായമെന്ന് പറയാന് സാധിക്കുകയില്ല നമ്മുടെ യോഗ ചെയ്യുന്നതുകൊണ്ട് വളരെ ഗുണമാണ് ശരീരത്തിന് ശരീരത്തിന് ഗുണത്തിനും ആരോഗ്യത്തിനും യോഗ വളരെ നല്ലതാണ് ഡെയിലി യോഗ ചെയ്യുന്നതുകൊണ്ടേറ്റവും നല്ലതാണ് ഡെയിലി യോഗ ചെയ്യണം അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും പൊതുവാ ഗുണപ്രദമാണ് ചികിത്സാസമ്പ്രദായമാണ് ചികില്ലാസമ്പ്രദായമെന്ന് പറയാനൊക്കത്തില്ല എന്നാലും ചില എക്സാമ്പിള് തന്നെ നമ്മുടെ ശരീരത്തെ വേദനകള് നടുവേദന കൈവേദന അതിനെല്ലാത്തിനും ഓരോ യോഗേയ്യുന്നോണ്ട് നല്ല ഗുണമാണ് കിട്ടുന്നത് അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഫലം ഫലപ്രദവുമാണ് യോഗം കൊണ്ടൊരു ഗുണങ്ങള് വെച്ചാല് നമ്മുടെ ആ ശരീരം എപ്പോഴും ഫ്ലെക്സിബിളായിരിക്കും ഫ്ലെക്സിബിളായിരിക്കും വലിയ വലിയ അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കാന് ബാധിക്കുകയില്ല നമ്മള് ഡെയിലി യോഗ ചെയ്യുകയാണെങ്കില് അതൊക്കെയാണ് യോഗ കൊണ്ടുള്ള ഗു ഗുണങ്ങള് അല്ലാണ്ടത് മെയിനൊരു ചികിത്സയായിട്ട് കണക്കാക്കാന് സാധ്യമല്ല ചികിത്സയ് നമ്മള്ക്കാരോഗ്യത്തിന് ചി ചില രോഗം വന്നാല് ചികി ച്ച് യോഗ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല ച അതിന് ചികിത്സിക്കുക തന്നെ വേണം ചികിത്സ തന്നെ ചികിത്സ ഓ ഒക്കെ യോഗയ യോഗ കൊണ്ട് കാര്യമില്ല